ആ കേൾക്കാം കേൾക്കാം ആണോ ആ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ആണോ അപ്പം കുറച്ചു നേരത്തെ വരാത്തതെന്തായിരുന്നു ആ ആ ആ ആ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് തൽക്കാലം കഫ് സിറപ്പും പനി കുറയാനായിട്ട് പാരസെറ്റാമോളും ആണ് കൊടുക്കുന്നത് അപ്പം അതോടൊപ്പം തന്നെ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് ആവിപിടിക്കണം പിന്നെ ആടലോടകത്തിൻറെ ഇലയിട്ട് നന്നായിട്ട് കാപ്പിയിട്ട് കുടിച്ചാൽ നല്ല മാറ്റം വരും അപ്പം നന്നായിട്ട് ഇപ്പോൾ രണ്ടുദിവസം ഒരു രണ്ടു മൂന്ന് നേരം നന്നായിട്ട് ആവിപിടിക്കണം ഞവരയിലയോ മറ്റോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആവിപിടിച്ചാൽ ഈ കഫത്തിൻറെ ബുദ്ധിമുട്ട് കുറെ കുറയും പിന്നെ കഫത്തിൻറെ ആൻറിബയോട്ടിക് ഉണ്ട് അതുകൂടി കഴിച്ചാൽ പെട്ടന്നു അതങ്ങ് കുറയും എല്ലാം കഴിഞ്ഞല്ലോ ആ ആ ആ ശരി ശരി വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ ആണോ ആ അത് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം അപ്പോൾ നോർമലി ഒരാൾക്ക് പനിയായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ കോവിഡിന് ശേഷം എപ്പോൾ വന്നാലും നമ്മൾ ബി പിയും ഓക്സിജൻ ലെവലും പനിയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ലെവലൊക്കെ ചെക്ക് ചെയ്യും അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് ബി പിയും ഓക്സിജൻ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മൂന്നുദിവസം തൽക്കാലം ഇവിടെതരുന്ന ഇത് മെഡിസിൻ കഴിക്കണം അതിനുശേഷം കുറവില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇത് മെഡിസിൻ വാങ്ങിക്കാം തൽക്കാലം ഈ ഇപ്പോൾ നമ്മളിവിടന്നു തരുന്ന മരുന്നൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് റസ്റ്റ് എടുക്കണം അധികം യാത്രയൊന്നും ചെയ്യണ്ട വീട്ടിൽത്തന്നെ മാക്സിമം ഇരിക്കുക പുറത്തൊന്നും പോവാതെ വീട്ടിൽത്തന്നെ റസ്റ്റ് എടുത്താൽ പെട്ടന്നങ്ങു കുറയും അതോടൊപ്പം ആവിയൊക്കെ പിടിച്ചിട്ട് കാപ്പിയൊക്കെയിട്ട് കുടിച്ചു ഈ മരുന്ന് മരുന്ന് കറക്ട് ടൈമിൽ കഴിക്കണേ

ആ മൂന്നുദിവസം കഴിഞ്ഞിട്ട് കുറവില്ലാന്നുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ വരണ്ട ആവശ്യമില്ല വീണ്ടും ബുദ്ധിമുട്ട് കണ്ടിന്യു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വേണ്ടി വരും അപ്പോൾ മൂന്നുദിവസം ഇത് തരുന്ന മരുന്ന് കറക്ട് ടൈമിൽ കഴിക്കാൻ നോക്കണം കഴിച്ചിട്ട് കുറവില്ലാന്നുണ്ടെങ്കിൽ മൂന്നു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരണം വീണ്ടും വന്നിട്ട് നമുക്ക് ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം അതിനുശേഷം അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മെഡിസിൻ ഓക്കേ ഓക്കേ ആ ശരി ശരി ഓക്കേ താങ്ക് യൂ